ആ ഹലോ ആരാ വിളിക്കുന്നേ അതെല്ലോ ആ ആ ആ അതേല്ലോ അതേല്ലോ ആ ആ ഹാ ഓ ഇതൊന്ന് നോക്കാവേ മറന്നുവച്ചതാണോ

ആ ഇവിടെ കണ്ടില്ല കേട്ടോ ആ ആ ഒന്നു നോക്കട്ടെ അവിടെ കണ്ടില്ല കേട്ടോ ഇവിടെ ഈ ഭാഗത്തില്ലല്ലോ ബാഗിന്റെ കളറെന്നാ ബാ ഒരു ബാഗിവിടെ കണ്ടില്ല ബാഗിന്റെ കളറെന്നായിരുന്നു കറുപ്പാണോ ആ തോളത്തിടുന്ന ബാഗോ അതോ ചെറിയ ബാഗാണോ ആ ആ ആ ഉം ഞാനേ ഇവിടെ ഒരു റൂമുണ്ട് അവിടെ എടുത്തുവച്ചിട്ടുണ്ടോ എന്നു നോക്കാം അം ഇവിടെ അടുത്തൊരു റൂമുണ്ടേ അവിടെയുണ്ടോ എന്നൊന്നു നോക്കാം ഇനി ഇനി ഫ്രണ്ട്സാരേലും എടുത്തോപോലും എടുത്തില്ലായിരിക്കും ആ അതൊന്ന് നോക്കാന് ആണല്ലേ ആ ഞാനേ ഇവിടെ ഉണ്ടെങ്കില് ഒന്ന് നോക്കട്ടെ ഈ റൂമിലുണ്ടോന്നെ ഇവിടെ അടുത്തൊരു റൂമില് സാധാരണ എന്തേലും അങ്ങനെ മറന്നുവച്ചുകഴിഞ്ഞാല് സ്റ്റാഫ് മറന്നു വച്ചുകഴിഞ്ഞാല് എടുത്തുവയ്ക്കാറുണ്ടെ നോക്കാം

ആണല്ലേ ആ ഇവിടെ ഇവിടെ ക്യാമറയെക്കെയുണ്ട് കാരണം നമുക്കിവിടെ എന്തേലും മിസ്സിങ്ങായാലും നമുക്കങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പേടിക്കണ്ട ഇവിടെ ഇവിടെ ഉണ്ടെങ്കില് നമുക്ക് നഷ്ടപ്പെട്ടൊന്നും പോവത്തില്ല ഉം ആ ആ ആ നമുക്ക് അത് നമുക്കൊരു കംപ്ലെയ്ന്റ് കൊടുക്കാം നമുക്കങ്ങനെയൊന്ന് കണ്ടില്ലെങ്കില് നമുക്ക് ഒരു കംപ്ലെയ്ന്റ് കൊടുത്തിടാം ആ ഉം ക്യാബിനില് ക്യാബിനിലോ ഏത് ക്യാബിനാരുന്നു എത്രാമത്തെയായിരുന്നു ഏത് നമ്പറാണെന്ന് അറി മൂന്നാമത്തെയാ ഉം നോക്കട്ടേ എനിക്കിച്ചിരെ തിരക്കായിരുന്നേ നോക്കാം നോക്കാവെ ഞാനൊരു ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടേ ഉം ഇപ്പോള് നോക്കിയിട്ട് ഇപ്പോള് നോക്കിയിട്ട് പറയും ഉം ഇടയ്ക്കങ്ങനെ സ്റ്റാഫൊക്കെ ബാഗൊക്കെ മറന്നുവയ്ക്കാറുണ്ട് കാരണം അങ്ങനെ നഷ്ടപ്പെട്ടൊന്നും നമുക്ക് പോവാറില്ലേ ഉം ആ കറുപ്പ് മാത്രമേ ഉള്ളോ കളര് അതോ വേറെന്നേലും കളറുണ്ടോ അതേല് ഉള്ളു ആ ആ ഇവിടൊരു ബാഗിരിപ്പുണ്ടെന്നാണു പറഞ്ഞത് കേട്ടോ ആ ആ ഉണ്ടെന്നാണുപറഞ്ഞത് ആ ചെറിയൊരു ഫൈനടയ്ക്കണം ചെറിയൊരു ഫൈനുണ്ട് നമുക്ക് ആ ആ അതേ ഇവിടെ നമുക്കങ്ങനെ ചെറിയൊരിതുണ്ട് ഉം ആ ഇനി കുഴപ്പമില്ല നിങ്ങള് സ്റ്റാഫായതുകൊണ്ട് ആ സ്റ്റാഫായതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാം ചെറിയൊരു ഫയലും കൂടെ ഉണ്ടല്ലോ കൂടെ ഫയല് നമ്മുടേതാണോ ആ അതെന്നാന്ന് ചോദിച്ചാല് ഫൈനൊക്കെ പറയുന്നത് നിങ്ങളിതു മറന്നുപോകാതിരിക്കാന് വേണ്ടിയാണ് കാരണം എന്താണ് ഇങ്ങനെ ബൈച്ചാന്സിലിങ്ങനെ മറന്നുവച്ചാല് ചെറിയൊരു പണിഷ്മെന്റൊക്കെ ഉണ്ടന്ന് സ്റ്റാഫിനു തോന്നിയാലല്ലേ മറന്നുപോകാതിരിക്കത്തുള്ളു ആ ആ അതുകൊണ്ടാണു നമുക്ക് കാരണം ഇതിപ്പോള് ഒന്ന് ഉം അതേ ഞങ്ങക്കത് റിസ്ക്കല്ലേ നമുക്കത് അതിന്റെ ഒരു റിസ്ക് നമുക്കുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നെ ഉള്ളൂ ഇപ്പോള് ഇപ്പോള് ആദ്യമായതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല നമ്മള്ക്കത് സോള്വ് ചെയ്യാം കേട്ടോ ആ എടുത്തുവച്ചേക്കാം എടുത്തുവച്ചേക്കാം എന്നാലെ ആ ആ ശരി എന്നാല് ശരി ഓക്കെ വരുമ്പോള് മേടിച്ചോളേ ആ ഓക്കെ